ഇപ്പോൾ നമ്മൂടെ പ്രദേശത്ത് കൂടുതലായിട്ടും കിട്ടുന്ന മത്സ്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മത്തി കിട്ടും അയല കിട്ടും നത്തോലി അപ്പോൾ പല രീതിയിലുള്ള മത്സ്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെയില് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കിട്ടുന്ന മത്സ്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ പുതിയാപ്ലയുണ്ട് പുതിയാപ്ലയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഈ പുതിയാപ്ല എന്താന്നൊക്കെ അപ്പോൾ അപ്പോൾ പല രീതിയിലുള്ള ക മീനുകള് കാര്യങ്ങള് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടാറുള്ളതെന്ന് പറഞ്ഞാല് നമ്മള് കൂടുതലായിട്ടും മിടി ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ അടുത്തു നിന്നാണ് കൂടുതലായിട്ടും വാങ്ങാറുള്ളത് അപ്പോൾ അപ്പോൾ ഓരോ മീനിൻ്റെ വിലയും വേറെ വേറെയാണ് ഇപ്പോൾ മത്തിക്കൊക്കെയാണെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയാപ്ലയ്ക്കൊക്കെ ഇരുന്നൂറ് നൂറ്റെൺപത് അങ്ങനത്തെ റേറ്റുകളും വരുന്നുണ്ട് പിന്നെ അയൽക്കൂറ പിന്നെ വാള പിന്നെ അങ്ങനെ പല രീതിയിലുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തതരം മീനുകൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓരോ മീനും പല രീതിയിലുള്ള വിലയും കാര്യങ്ങളൊക്കെയാണ് അവര് ഇടുന്നത് അപ്പോൾ നമ്മളതിനനുസരിച്ച് ഓരോ മീനും പോയി വാങ്ങിയിട്ട് നമ്മളത് പല രീതിയിലും പരീക്ഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് മെയിനായിട്ട് മീനിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്